കാലാവസ്ഥയും സന്ദർഭവും പരിഗണിക്കുമ്പോൾ വയനാട് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം എന്നുപറയുന്നത് ഡിസംബർ ജനുവരി കാലഘട്ടങ്ങളാണ് ആ സമയത്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ അതുതന്നെയാണ് ഏറ്റവും ഘട പ്രധാനപ്പെട്ട ഘടകം എന്നുപറയുന്നത് കൊടും തണുപ്പ് ആ തണുപ്പിന് വയനാട് സന്ദർശിക്കാൻ വളരെ വളരെ നല്ല ഒരു സമയംതന്നെയാണ് വയനാടിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സമയം എന്നുപറയുന്നത് ആ ഡിസംബർ ജനുവരി കാലഘട്ടങ്ങളാണ് നമ്മുടെ ശൈത്യകാലം അതായത് മരങ്ങളുടെയെല്ലാം ഇലകൾ പൊഴിഞ്ഞ് തളിരിലകൾ വന്ന സമയം പച്ചപ്പുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയം കോടമൂടിയ സമയം ഏറ്റവും നല്ല സമയം എന്നുപറയുന്നത് ഡിസംബർ ജനുവരി കാലഘട്ടം തന്നെയാണ് മതമേളകൾ അതായിത് പ്രത്യേക ഉത്സവങ്ങൾ എന്നുപറയുമ്പോൾ മാർച്ചുമാസത്തിലെ ഉത്സവമാണ് മതസൗഹാർദത്തോടെ അതായിത് ജാതിമത ഭേതങ്ങൾ ഇല്ലാതെ മതസൗഹാർദത്തോടെ പതിനഞ്ച് ദിവസം നിലനിൽക്കുന്ന ഉത്സവം ആ ഉത്സവം എന്നുപറയുന്നത് ലോകത്തിലെ ഏറ്റും ലോകത്തിലുള്ള ഏതാൾക്കാർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റിയ ഒരു സമയംതന്നെയാണ്